എൻ്റെ കുടുംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടില് എൻ്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് എനിക്കൊരു ഏട്ടനുണ്ട് എനിക്കൊരനിയനുണ്ട് ഞാനുണ്ട് ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് വർഷമാകുന്നു പിന്നെ ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വീട്ടില് ഹസ്ബൻറ്റുണ്ട് ഹസ്ബ ഞാൻ എനിക്ക് ഒരു മോൻ മോളുണ്ട് പിന്നെ ഹസ്ബൻറ്റിൻ്റെ അച്ഛനുണ്ട് ഹസ്ബൻറ്റിൻ്റെ അമ്മ ഒരു വർഷം മുന്നേ മരിച്ച് പോയതാണ് അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് അങ്ങനെയുള്ളതാണ് എൻ്റെ കുടുംബം അത് ഞങ്ങള് വളരേ സന്തോഷത്തോടെ ജീവിച്ച് പോകുന്നതാണ് പിന്നെന്ന് വെച്ചാൽ സുഹൃത്തുക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക് അതായത് ഞാന് ഞാന് പിന്നെ എം എ മലയാളം വരെ പഠിച്ചതാണ് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതായത് എൻ്റെ അഞ്ചാം ക്ലാസ് തൊട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഇപ്പോഴും എനിക്ക് കോൺടാക്ട് ലിസ്റ്റിലുണ്ട് അപ്പം എല്ലവരോടൊന്നും കമ്പനി ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള എല്ലാവരോടും നമുക്ക് കമ്പനി ഉണ്ട് ഫോൺ നമ്പറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് സുഹൃത്ത് ബന്ധം നമുക്കൊരിക്കലും മാച്ച് കളയാൻ പറ്റാത്തത് ആണല്ലൊ നമ്മുടെ കുടുംബം പോലെതന്നെയാണല്ലോ നമ്മുടെ സുഹൃത്തുക്കളും അതായത് നമുക്കൊന്ന് എന്തെങ്കിലും ഒന്ന് ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുടുംബത്തെപ്പോലെ തന്നെ നമ്മളെ പിന്നെ സഹകരിക്കുന്നവരാണ് നമ്മളുടെ സുഹൃത്തുക്കള്